ഞാൻ ഈ ഇടയ്ക്ക് ഒരു റണ്ണിങ് ഷൂസ് ഓടാൻ വേണ്ടി ഒരു ഷൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം കാണാനൊക്കെ നല്ല ലൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വല്യ കുഴപ്പമില്ലാത്ത റേറ്റാ അഞ്ഞൂറ് അറുന്നൂറ് റുപ്യാ റേറ്റ് ഏകദേശം ഒരു മീഡിയം സൈസ് സാധനത്തിന് നല്ല റേറ്റും കാര്യങ്ങളും കൊഴപ്പോല്ലാത്ത ഷൂസായിരുന്നു ഓർഡർ ചെയ്ത് ഇവിടെ വരണ വരെ നല്ലതാവുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത് വന്നപ്പോൾ ആ പ്രതീക്ഷയൊക്കെ തെറ്റി വെള്ള കളർ ഓർഡർ ചെയ്തതാൽ വന്നത് പച്ചയായിരുന്നു പിന്നെ അതിൻ്റെ സോളും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശം ഹീൽ അതായത് അവർ പറഞ്ഞ കട്ടിയും കാര്യങ്ങളൊന്നും അതിനുണ്ടായിരുന്നില്ല പിന്നെ സ്മൂത്നെസ് ഒന്നും ഇല്ല പിന്നെ ലേസും കാര്യങ്ങളൊക്കെ പഴയതു പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കുറേ കാലം മുൻപ് എടുത്ത് വെച്ച സാധനം പോലെയാണ് അതിൻ്റെ ഇരിയ്ക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ലേസ് വലിയ്ക്കുമ്പോളേയ്ക്കും ലേസ് പൊട്ടുകയും ചെയ്തു ഞാനാ സാധനം റിട്ടേണാക്കി